ഫോട്ടോഗ്രാഫി ഒരു വിനോദവൃത്തിയായി കൊണ്ട് നടക്കാനുള്ളൊരു പ്രചോദനം എപ്പോഴും എൻ്റെ സുഹൃത്തക്കളും തന്നെയാണ് കാരണം എൻ്റെ സുഹൃത്തുക്കൾ ഓരോയിടത്ത് പോകുന്നു ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു അവിടുത്തെ ഫോട്ടോസും റീൽസും ഒക്കെ ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയെ പങ്ക് വെക്കുമ്പോൾ അത് കാണുമ്പം സ്വാഭാവികമായിട്ടും എനിക്കും ഒരു തോന്നലുണ്ടാവും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ ഫോട്ടോസ് എടുത്തും എൻ്റെ കഴിവ് അങ്ങനെ ആരെയും കാണിക്കണം എന്നല്ല പക്ഷെ ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും മികച്ച ഫോട്ടോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയെ പോസ്റ്റ് ചെയ്ത് നാല് പേരെ കാണിക്കണമെന്ന് സ്വഭാവികമായിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് തോന്നുന്നപോലെ തോന്നും അപ്പം ഇത് തന്നെയാണ് എനിക്കൊരു ഉണ്ടാകുന്നൊരു പ്രയോജനം പ്രചോദനം കാരണം കൂട്ടുകാർ പോസ്റ്റ് ചെയ്യുന്ന ഇതും റീൽസും സ്റ്റോറീസൊക്കെ കണ്ടിട്ട് അവരെടുക്കുന്ന രീതിയും അവരെടുക്കുന്ന യൂസ് ഉപയോഗിക്കുന്ന ഫിൽറ്ററും മറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് അതുപോലെത്തന്നെ എടുക്കാൻ ഞാൻ ഒരുപാട് സമയം ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടും ഉണ്ട് ചിലപ്പോളൊക്കെ അത് വിജയിക്കാം ചിലപ്പോളൊക്കെ അത് പരാജയപ്പെടാം പക്ഷെ പരാജയം ഒന്നിൻറേയും ഒരു അവസാനമല്ലല്ലോ പക്ഷെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്ന് തന്നെയാണ് അതുകൊണ്ട് മികച്ച ഫോട്ടോസ് എടുക്കാൻ എപ്പോഴും ശ്രമിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഇതിൽനിന്ന് എപ്പോഴും കാണുന്നത്